പാട്ട് പഴയ പാട്ടുകളേക്കാളും നല്ലത് പുതിയ പാട്ടുകളാണെന്ന് തോന്നും പക്ഷെ പഴയ കാല പാട്ടുകൾക്കാണ് അർത്ഥം ഉള്ള പാട്ടുകൾ അത് ഓരോരുത്തരും പാടുമ്പോൾ അവരുടെ ആ ഒരു രീതി അവരുടെ അവതരണ ശീലം ആ ചിലർ നല്ല അടിപൊളി ആയിട്ട് കയ്യെടുത്തുകാ കെടുത്ത് നല്ല പാടും ചിലർ അങ്ങനെ അല്ല നിന്ന് ഒറ്റ ട്രിപ്പിന് നിന്ന് പാടും ഇത് നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം അങ്ങനെയൊക്കെയുണ്ട് അത് പാട്ടിൻ്റെ രീതി അനുസരിച്ചും പാട്ടിൻ്റെ വരികളുടെ രീതി അനുസരിച്ചുമാണ് നമുക്ക് പ്രതിഫലിക്കുന്നത് അത് ഓരോരുത്തരുടെ അവതരണം ചിലർ പാടുമ്പം നല്ലതായിട്ട് നമ്മളെ നമ്മുടെ മനസ്സിന് കുളിർമ നൽകും ചിലർ പാടുമ്പം നമുക്ക് അത്രയും തോന്നത്തില്ല പക്ഷേ ഏത് പാട്ടായാലും നമുക്ക് പാട്ടിനോട് ഒത്തിരി പാട്ട് കേൾക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് മനസ്സിനെ നല്ല പോലെ സന്തോഷിപ്പിക്കും മനസ്സിന് ഒരു ശാന്തത വരും മനസ്സിനെ നമുക്ക് മറ്റു വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്നും നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പാട്ട് നമ്മുടെ മനസ്സിന് കുളിർമ നൽകും അത് പാടുന്ന മനുഷ്യൻ്റെ രീതി അനുസരിച്ചു ആയാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ തോന്നും നമുക്ക് മനസ്സിൻ്റെ ഒരു പ്രതിഫലനം ആണ് അത് ചില പാട്ടുകൾ പാടുമ്പം നമുക്ക് ദൈവികമായിട്ട് കൂടുതലും നമുക്ക അടുക്കാനുള്ള ഒരു അവസരമായിരിക്കാം ചിലത് പാടുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് കുട്ടികൾക്ക് ഉറങ്ങാനുള്ള പാട്ട് ആ രീതിയിൽ വരും ചിലർ ഇപ്പോഴത്തെ അടിപൊളി പാട്ടുകളൊക്കെയാന്നെങ്കിൽ ആക്റ്റീവ് ആയിട്ട് പാടും നമ്മൾ തെറ്റാന്നും പറയുന്നില്ല അതും നല്ലത് തന്നെ പക്ഷെ നമ്മൾക്ക് പഴയ പാട്ടുകൾക്ക് ഒരു അർത്ഥമുണ്ട് അതിന് ഒരു അർത്ഥം വച്ചു ഇപ്പോഴഴത്തെ അടിപൊളി പാട്ടുകൾക്ക് അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ഉണ്ടെന്നും പറയാവുന്ന രീതിയിലാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പഴയ പാട്ടുകളും അതുപോലെ നമക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളും ങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താൽപ്പര്യം എനിക്ക് ആ ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുമ്പം ദൈവികമായിട്ടുള്ള കൂടുതൽ ഉണർവ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങൾ ഒക്കെയുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും മാറ്റം ഉണ്ടാവാൻ ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ് പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ടുകൾ ഞാൻ കേൾക്കും ചെറുതായിട്ടു പാടും ഇത്രയൊക്കെ ഉള്ളൂ മറ്റുള്ളവർ പാടുന്ന കേൾക്കുമ്പം ചിലർ പാടുമ്പം നമുക്ക് അത് സന്തോഷം തരുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പാട്ടുകൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഓരോരുത്തരുടെ പാടുന്ന രീതിക്കും ചില പാട്ടുകൾ നമ്മൾ ചിലത് ഓർഗനൊക്കെ വായിച്ച് സൗണ്ട് കൂടി കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല സൗണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ പാടുന്നതിനോടാണ് കേൾക്കുന്നതാാണ് എനിക്ക് ഇഷ്ടം കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുമ്പോൾ അതിന് ഒരുപാട് സൗണ്ട് നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒരുപാട് ഉണർവ് നൽകും നല്ല രീതിയിലുള്ള വിഷമങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്ന ഒരു കാര്യമാണ് പാട്ട്